ഞങ്ങളുടെ ഗ്രാമത്തിലെ ശവസംസ്കാര ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ അല്ലാ എങ്കിൽ ഇന്ത്യയിൽ ഒരുപാട് ജാതികളുണ്ട് ഓരോ ജാതിക്കും ഓരോ രീതിയിലായുള്ള ശവസംസ്കാരങ്ങളാണ് ക്രിസ്ത്യാനികൾക്കാണങ്കിൽ സെമിത്തേരി എന്ന സ്ഥലത്താണ് അവരെ അടക്കം ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ഇപ്പോൾ ഒരാൾ മരണപ്പെട്ടാൽ ആ മരണം ആദ്യം പള്ളിയിലറിയിക്കും പള്ളി മണിയടിക്കും പള്ളി മണിക്ക് ശേഷം എല്ലാവരെയും അറിയിക്കും മരിച്ചയാളുടെ വീട്ടിൽ കുറേ പ്രാർഥനകളും കാര്യങ്ങളും എല്ലാം തന്നെ കാണും അതിനടുത്ത ദിവസങ്ങളിൽ പള്ളിയിൽ കുറച്ച് കർമ്മങ്ങളോട് കൂടി സെമിത്തേരിയില് ബോഡിയോടെ കൊണ്ടുപോകും മൃതദേഹം സെമിത്തേരിയിൽ കൊണ്ടുപോയി അവിടെ അടക്കം ചെയ്യലാണ് പതിവ് ഹിന്ദുക്കൾ എടുക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ദഹിപ്പിക്കലാണ് കൂടുതലും ചെയ്യാറ് ഇല്ലായെങ്കില് കുഴിച്ചിടുക ഈ ദഹിപ്പിക്കുന്നതും കൂടുതൽ കൂടുതലും ഹിന്ദുക്കളിലാണ് നമ്മൾ കണ്ടുവരുന്നത് വീടിൻ്റെ അരികിൽ സ്ഥലമുണ്ടങ്കിൽ കുറച്ച് സ്ഥലമതിന് വേണ്ടി മാറ്റിവച്ച് അവിടെ മൃതദേഹം ഇവർ ദഹിപ്പിക്കുന്നു ഇല്ലായെങ്കിൽ മൃതദേഹം ദഹിപ്പിക്കാൻ ആധുനിക കാലത്ത് ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട് അവിടെയിപ്പോൾ മൃതദേഹം ദഹിപ്പിക്കാനും സാധിക്കുന്നതാണ് ഈ മൃതദേഹം ദഹിപ്പിച്ചതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന എല്ലിൻ്റെ പൊടി അതായത് ഭസ്മം ഭസ്മം ഇവർ പുഴയിലുമൊഴുക്കുന്നു ഇനിയുമുള്ള ഒരു ജാതി എന്നു പറയുന്നത് അല്ലെങ്കിൽ ഒരു മതം എന്നു പറയുന്നത് മുസ്ലീമുകളാണ് മുസ്ലീമുകൾക്ക് ഖബർ ഇടം എന്നു പറഞ്ഞൊരു സ്ഥലമുണ്ട് അവരുടേതായ കർമ്മങ്ങളോ ക്രിയകളൊക്കെ കഴിഞ്ഞ് ഈ മൃതദേഹമെടുത്ത് അവർ ഖബറിൽ കൊണ്ട് അടക്കം ചെയ്യുന്നു